ഹലോ ആ ഇത് വിൽട്ടൺ ഹോട്ടൽ റസ്റ്റോറൻറ്റല്ലേ ആ സാറേ നമ്മൾക്ക് ഒരു പതിനഞ്ച് പേർക്കുള്ള ഫുഡിന് വേണ്ടീട്ട് വിളിക്കുന്നതായിരുന്നേ നമ്മൾക്ക് അവിടുത്തെ ട്രഡീഷണൽ ഫുഡ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നതായിരുന്നു ആ ഓക്കെ അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് അവിടെ വരുന്നത് നമുക്ക് നോൺവെജ് മതി

ഓക്കെ ഈ അൽഫാമ് നമുക്ക് ഒരു പതിനഞ്ച് പേർക്കായിട്ട് ഉണ്ടാവുമോ

ആ നമുക്ക് എത്ര പേയ്ക്ക് വേണമെങ്കിലും അവർ അവിടുന്ന് ഉണ്ടാവുമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ സീറ്റ് എന്തേലും റിസേർവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ബുക്ക് ചെയ്യേണ്ട എന്തേലും ആവശ്യം ഉണ്ടോ ഓർഡർ തന്നാൽ മതി അപ്പം നമ്മൾ അതനുസരിച്ച് സീറ്റ് ഉണ്ടാവുമായിരിക്കും അല്ലേ ആ നമ്മൾക്ക് എപ്പോഴത്തേക്ക് വന്നാലായിരിക്കും അവിടെ ഈ ഫുഡ് ഒക്കെ കറക്റ്റ് ടൈമിംഗ് അങ്ങനെ എന്തേലും ഉണ്ടോ ഉണ്ടാക്കുന്ന നമ്മൾ പ്രിപ്പേറ് ചെയ്യാൻ എങ്ങനെ അല്ല നമ്മൾക്ക് അവിടെ വന്ന് കഴിക്കാൻ വേണ്ടീട്ടാണ് ആ അപ്പം എപ്പോഴത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതെല്ലാം പ്രിപ്പേറ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടീട്ടാണ് അത് ഓക്കെ നമ്മൾ നമ്മളെ ടൈമിൽ നിങ്ങൾക്ക് ഓക്കെ ആണ് നമുക്കൊരു നാലുമണി നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും അത് പ്രിപ്പേറ് ചെയ്ത് വെയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഏഹ് അപ്പം നമ്മൾ നാലര ആകുമ്പോഴത്തേക്കും വരാം നമുക്കൊരു പതിനഞ്ച് പേർക്കുള്ളതാണേ വേണ്ടത് റൂംസ് അവിടെ അവൈലബിൾ ആണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് റൂമ് വേണ്ടി വരില്ല നമ്മൾ ഹോട്ടലിൽ തന്നെ റസ്റ്റോറൻറ്റിൽ തന്നെ വന്ന് കഴിച്ചോളാം അപ്പം നമുക്ക് സിംഗിൾ ടേബിൾ തന്നെ വേണം അതായത് പതിനഞ്ച് പേരും ഒറ്റ ടേബിളിൽ തന്നെയാണ് നമുക്ക് കഴിക്കേണ്ടത് ഏഹ് ആ അത് ഉണ്ടാവുമായിരിക്കും അല്ലേ ആ ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പം നിങ്ങൾ എല്ലം സെറ്റ് ചെയ്ത് വച്ചിട്ട് നമ്മളെയൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഞങ്ങൾ നേരെ ഡയറക്റ്റ് എന്നാൽ അങ്ങോട്ട് വന്നോളാം അതെ ആ ഓക്കെ എന്നാൽ ആ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തേലും മാറ്റം എന്തേലും ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം കാരണം എന്താണെന്ന് വച്ചാൽ അപ്പം ഞാൻ പറഞ്ഞോളാം ആ ആയിക്കോട്ടെ